കാലങ്ങൾ മാറും തോറും നമ്മുടെ മലയാള ഭാഷയിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ടൊക്കെ ശുദ്ധമായ ഭാഷയും അച്ചടിയായിട്ടുള്ള ഭാഷയും മലയാള ഭാഷയും ഉപയോഗിച്ചിരുന്നവർ ഇപ്പോൾ ഉപയോഗിക്കുന്ന മലയാളം വളരെ വ്യത്യസ്തവാണ് അതായത് പണ്ടൊക്കെ ഉപയോഗിച്ചിണ്ടായിരുന്നൊരു അച്ചടി മലയാളായിരുന്നു എന്നാൽ ഇപ്പോൾ പലരും പറഞ്ഞ് വരുന്ന മലയാളമാണ് മംഗ്ലീഷ് അതായത് മലയാളോം ഇംഗ്ലീഷും കൂടി കലർന്നിട്ടുള്ളൊരു സംഭവമാണ് ഈ മംഗ്ലീഷെന്ന് പറയുമ്പോൾ അച്ചടി ഭാഷ പറയുമ്പോൾ ഇപ്പോൾ പലവർക്കും മനസ്സിലാവില്ല എന്നാൽ മംഗ്ലീഷ് പറഞ്ഞാൽ മാത്രമേ മിക്കൊള്ളവർക്കും മനസ്സിലാവു ഇപ്പോൾ ഒരാൾക്ക് സംസാരിക്കുമ്പൊത്തന്നെ ഇപ്പം എൻ്റെ കാര്യായിക്കോട്ടെ എനിക്കിപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് മൊത്തമൊരു കാര്യം എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റില്ല എൻ്റെ അതിൻ്റെ ഇടക്ക് ഇംഗ്ലീഷിലാ ഓരോരോ വാക്കുകളായാലും വരും അതെപോലെ ഒരിക്കലും ഒരച്ചടിയായില്ലെങ്കിൽ കൃത്യമായിട്ട് എന്നെക്കൊണ്ട് മലയാളം മൊത്തത്തിൽ സംസാരിക്കാൻ പറ്റില്ല ഒരു രണ്ട് മിനിറ്റ് ഇപ്പം മൊത്തത്തിൽ സംസാരിക്കാൻ പറന്നായാലും എന്നെക്കൊണ്ട് മലയാളം മൊത്തത്തിൽ നേരെ സംസാരിക്കാൻ പറ്റില്ല അതിനെടക്ക് ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ വരും അപ്പം നമ്മുടെ കാല ക്രമേണ മലയാള ഭാഷയിൽ നമുക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ഓരോരോ കാലം കൂടും തോറും ഇതെന്തായാലും കൂടി വരുവൊള്ളു എല്ലാവരും ഇപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് അവരെൻ്റെ ഭാഷ പഠിക്കാനൊക്കെയാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ബാക്കിയുള്ള ഇംഗ്ലീഷ് പഠിക്കാനായാലും ബാക്കിയുള്ള ലാങ് കൊറിയനായിക്കോട്ടെ ജാപ്പനീസ് ആയിക്കോട്ടെ അങ്ങനത്തെ ഭാഷകൾ പഠിക്കാനാണ് ഒരുപാടാൾക്കാർ നോക്കുന്നത് മലയാളത്തിനോടൊക്കെയുള്ള എല്ലാവരുടേയും ആ ഒരു കമ്പം കുറഞ്ഞ് വരുകയാണ് ആർക്കും ഇപ്പം നമ്മുടെ ബലാ മലയാള ഭാഷേനോടുള്ള ആ കമ്പം പണ്ടത് എത്രയുണ്ടായിരുന്നോ അത്രെയൊന്നുമില്ല എല്ലാവർക്കും മറ്റുള്ള ഭാഷയിലാണ് ഭാഷ പഠിക്കാനാണ് ആഗ്രഹം ഇപ്പം ഇപ്പോഴത്തെ തലമുറയായിക്കോട്ടെ അവരിങ്ങനെ കുറെ സീരീസും സീരിയൽസും ഒക്കെ കണ്ടിട്ട് ബാക്കി ബാക്കിയുള്ള ഭാഷയിനോടാണ് അവർക്ക് കമ്പം അവരൊക്കെ അത് പഠിച്ച് പഠിച്ച് അവരത് സംസാരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് മലയാളം കുറെ പേർക്കൊക്കെ ഇപ്പോഴത്തെ തലമുറകൾക്ക് എത്ര മലയാളം അറിയുന്നോ അതിനെക്കാട്ടിലും മറ്റുള്ള ഭാഷകൾ അറിയാം ഇപ്പം എൻ്റെ കാര്യം ആയിക്കോട്ടെ എനിക്ക് മലയാളത്തിനെക്കാട്ടിലും ഞാൻ ഒന്നും കൂടെ എനിക്ക് ഒരാളോട് ബാക്കിയുള്ളവരോട് എനിക്കും അച്ചടി മലയാളം സംസാരിക്കുന്നോ എന്നാൽ ഇംഗ്ലീഷ് മൊത്തം സംസാരിക്കുന്നോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പറയ്യാ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി എനിക്ക് വേണെങ്കിൽ രണ്ട് മിനിറ്റ് എനിക്ക് മൊത്തം നേരം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും എന്നാക്കൂടെ എനിക്ക് രണ്ട് മിനിറ്റ് മൊത്തം മലയാളം സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് മലയാള ഭാഷയിൽ വന്നിട്ടുള്ള മാറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത്